എൻ്റെ തോട്ടത്തിൽ ഉണ്ടാകുന്ന പൂക്കളും പഴങ്ങളും ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറിച്ചു കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ് അതുപോലെതന്നെ അപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുചെയ്യും പിന്നതിൻ്റെ ഇതൊക്കെ വെട്ടിക്കളയും അതായത് പൂ ചീയാൻ തുടങ്ങുമല്ലോ അപ്പോൾ അത് വെട്ടിക്കളയും വെട്ടിക്കളയുമ്പോൾ പുതിയ പൂവ് ഉണ്ടാവും ഞാനത് ആർക്കും പറിച്ചു കൊടുക്കാനോ സമ്മതിക്കൂല ആരും പറിക്കാനും സമ്മതിക്കില്ല അത് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അതിലൊരു പൂ ഉണ്ടാകുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങൾന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹർമ്മൂസെ ഉള്ളു കറുമൂസ്ന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള കറ്മൂസാണ് അധികം വലിപ്പമൊന്നും വയ്ക്കില്ല കറ്മൂസ് കറ്മൂസാണ് കൂടുതലും പഴങ്ങളെന്ന രീതിയിലുള്ളത് അപ്പോൾ പഴങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ ഉണ്ടാവും അതായത് ഒന്ന് രണ്ട് രണ്ട് മൂന്നെണ്ണമൊക്കെ കൂടുതൽ ടൈമിലും പിന്നെ രണ്ടും മൂന്നെണ്ണക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്താക്കുംന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നെണ്ണക്കെ ഉണ്ടാവുമ്പോൾ വീടിൻ്റടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് കൊടുക്കാൻ അതായത് വീടിൻ്റടുത്തുള്ളവർക്കും കൊടുക്കും കാരണം ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞുപോകില്ലെ